ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതല് നോക്കുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ യു ലൊക്കാലിറ്റികൾ അനുസരിച്ച് അവിടത്തെ യാത്ര ചെയ്യുന്ന ടൈമിങ്ങും കാര്യങ്ങളക്കെ നോക്കാറുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി സമയങ്ങള് കാട്ടിൽക്കൂടിയുള്ള യാത്രകള് കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുകയും അതുപോലെ സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ഒക്കെയാണ് ഞാൻ ട്രാവൽ കാര്യങ്ങള് യൂസ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാറുള്ളത് അതുപോലെതന്നെ വെഹിക്കിൾ കാര്യങ്ങളാണെങ്കിലും നൈറ്റ് ടൈമില് യാത്ര ചെയ്യാനാണെങ്കിൽ ബസ്സ് കാര്യങ്ങളും ട്രെയിൻ ആണെങ്കിലും അതൊക്കെ നല്ല സീറ്റുകളോ കാര്യങ്ങളോ സ്ലീപ്പറോ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ പോവാനും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ടയേർഡ് ആവാതിരിയ്ക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട് ലോങ്ങ് പോവുമ്പോൾ അതുപോലെതന്നെ സ്വന്തം വെഹിക്കിൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നൈറ്റ് ടൈമില് കാറ് കാര്യങ്ങള് യൂസ് ചെയ്യാനും ഉറങ്ങിപ്പോകാതിരിയ്ക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് യാത്രകള് അവോയ്ഡ് ചെയ്യുകയും ഫ്രണ്ട്സിനേയും കാര്യങ്ങളൊക്കെ ഒപ്പം കൂട്ടുകയും അങ്ങനെ ഓരോന്നും കാര്യങ്ങള് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നൈറ്റ് യാത്രകളും ലോങ്ങ് പോകുന്നതുമൊക്കെ ആണെങ്കിൽ തന്നെ മാക്സിമം ബസ്സിലും ട്രെയിനിലുമായിട്ട് പോകുവാൻ വേണ്ടി മാക്സിമം ഞാൻ നോക്കാറുണ്ട് കാരണം എന്താണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയില് ഉറങ്ങുകയും കാര്യങ്ങൾക്കക്കെ പറ്റുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് മാക്സിമം പറ്റുന്ന രീതിയില് ഞാൻ ചെയ്യാറുണ്ട്